വിപണിയിലെ റെഡിമെയ്ഡ് വസ്ത്രങ്ങളിൽ നിന്ന് കൈകൊണ്ട് നിർമ്മിച്ച വസ്ത്രങ്ങൾ വളരെ അധികം വ്യത്യാസമുള്ളതാണ് ഇപ്പം മെഷീൻ വർക്ക് എന്ന് പറയുമ്പം വളരെ അധികം പെട്ടെന്നില്ലാതായി പോകുന്ന ഒരു സാധനമാണ് നമ്മളെ കൈകൊണ്ട് തയ്ക്കുന്ന എന്ത് സാധനമായിരുന്നാലും അത് വളരെ അധികം ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും അതിനൊരു ഭംഗിക്കൂടുതലായിരിക്കും ഒരാളുടെ കഴിവാണ് നമ്മൾ ഈ കൈ തയ്യൽ കൊണ്ട് നമ്മളുദ്ദേശിക്കുന്നത് മറ്റേ മെഷീൻ ആവുമ്പം നമ്മൾ ഒന്ന് പറഞ്ഞു കൊടുക്കുമ്പം അത് വേറൊരാൾ ചെയ്യുന്നതാണ് ഇപ്പം ക്രീയേറ്റീവായിട്ട് ഒന്നും ചെയ്യുന്നില്ല ഒരാൾ പറഞ്ഞു കൊടുക്കുന്നതാണ് മെഷീൻ വർക്ക് വഴി ചെയ്യുന്നത് പക്ഷേ നമ്മൾ കൈകൊണ്ട് തുന്നുന്നതെന്ന് വച്ചാൽ അത് ഇപ്പം കൈത്തറിയായിരുന്നാലും ബാലരാമപുരത്ത് ഇഷ്ടംപോലെ കൈത്തറി വസ്തുക്കൾ ഉണ്ട് ആ കൈത്തറി വരുമ്പോഴത്തേക്ക് അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എന്തുകൊണ്ടാണ് കൈകൊണ്ട് തുന്നുന്നതുകൊണ്ട് മാത്രമാണ് അവർക്ക് കൈത്തറി അത്രയും അധികം പ്രിയപ്പെട്ടതായി പോവുന്നത് അതുകൊണ്ട് എന്നും എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം കൈകൊണ്ട് തുന്നുന്ന വസ്ത്രങ്ങൾ തന്നെയാണ് മെഷീൻ വർക്കിനെ കാട്ടിയും ഏറ്റവും കൂടുതൽ ലാസ്റ്റ് ചെയ്യുന്നതും ഈ കൈത്തറി വസ്ത്രങ്ങൾ ആയിരിക്കും അതുകൊണ്ട് കൈ തയ്യൽ കൊണ്ടുണ്ടാക്കിയ പല ഐറ്റംസും ഇപ്പം പ്രിയപ്പെട്ടതാണ്